ആ ചേച്ചി

ആ എന്താ ചേച്ചി വേറെയെന്തെങ്കിലുമുണ്ടോ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അതെ അതെ എന്താ ചേച്ചി ആ അതെ ചേച്ചി എന്താണ് കുഴപ്പമുണ്ടോ ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ അയ്യോ ചേച്ചി ഞാൻ അതു ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് ഓർമ്മ വന്നില്ല അയ്യോ അയ്യോ അയ്യോ ചേച്ചി ഞാൻ അതു ശ്രദ്ധിച്ചില്ല ആ ഇനിയിപ്പോൾ അതെ ആ ആ ആ നോക്കാം ചേച്ചി എന്നാൽ ചെയ്യാം ഞാൻ ഇനി ചെയ്യാം ആ ആ ആ ആ ചേച്ചി വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതാലോചിച്ചുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ തെറ്റ് തന്നെയാണ് കുറച്ച് അതെ ചേച്ചി വീട്ടിൽ

ആ ചേച്ചി കുറച്ച് ഞാൻ

ആ ആ ആ ഓക്കേ ശരി ആ ആ ശരിയേച്ചി ചെയ്യാം ഇനി ഇനി ഞാൻ ആവർത്തിക്കില്ല ചേച്ചി

ആ ഞാൻ ഇപ്പൊൾ ആ നാളെ ഇപ്പോൾ എന്തായാലും നേരത്തെ വരാം ആ ശ്രദ്ധിക്കാം ചേച്ചി

ആ ചേച്ചി ആ എന്നാൽ ഞാൻ ശ്രദ്ധിച്ചോളാം ശരിയെന്നാൽ ചേച്ചി ഞാൻ പോവണു